നല്ല നിലവാരമുള്ള ഇനങ്ങളെ ആരോഗ്യമുള്ള മൃഗങ്ങളെയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിട്ട് കൊടുക്കുന്ന തീറ്റ കൃത്യമായി കഴിക്കുകയും അയവെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള പശുക്കളാണെന്ന് നമുക്ക് ഉര ഉറപ്പ് വരുത്താം നല്ല ഇ നിലവാരമുള്ള പശുക്കളാണെങ്കിൽ അവയുടെ ശരീര പ്രകൃതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആവശ്യത്തിന് തീറ്റയും വെള്ളവും കുടിക്കുകയും ആവശ്യം ആയിട്ടുള്ള കന്നുകാലികളൊക്കെ ആണെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള പാലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് നൽകുകയാണെങ്കിൽ അവർ നല്ല ഗുണമുള്ള ആരോഗ്യമുള്ള പശുക്കളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും വെറ്ററിനറി ഡോക്ടേഴ്സിൻ്റെ സഹായമാണ് തേടുന്നത് ഞാൻ പ്രധാമാനമായിട്ടും തേടുന്നത് ഡോക്ടർ ബിജുവിൻ്റെ സഹായമായിരിക്കും കാരണം നമുക്ക് എപ്പോഴും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കണമെങ്കിൽ ആരോഗ്യമുള്ള അമ്മമാരുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ആവശ്യത്തിന് തീറ്റയും ആവശ്യത്തിന് വിശ്രമവും ഒക്കെ ലഭിച്ചാൽ മാത്രമേ മൃഗങ്ങൾ ആണെങ്കിലും മനുഷ്യർ ആയാലും അവർക്ക് നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ആവശ്യത്തിന് അയവെട്ടുക ആവശ്യത്തിന് പുല്ല് കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ആവശ്യത്തിന് സമയാസമയങ്ങളിൽ അവർക്ക് കുത്തി വയ്പ്പുകൾ നൽകുക ആവശ്യമായിട്ടുള്ള കാൽസ്യം കാൽസ്യം മരുന്നുകൾ അവർക്ക് പ്രദാനം ചെയ്യുക ഇത്തരത്തിലുള്ള അവസ്ഥയിൽ മാത്രമേ മൃഗങ്ങൾ നല്ല കരുത്തുറ്റ വരായിട്ട് ജീവിക്കുകയും കുടുംബത്തിന് ആദായകരമായിട്ടുള്ള തരത്തിൽ അവർ നല്ല ഉൽപ്പന്നങ്ങൾ അവർ നൽകുകയും ചെയ്യുകയുള്ളൂ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ അവർ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ നമുക്ക് നൽകുകയും അതുവഴി നമ്മുടെ ആരോഗ്യവും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു കന്നുകാലികളെ ആണെങ്കിൽ സമയത്തിന് കറക്കുകയും അവരുടെ അകിട് വീക്കത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ശരിയായിട്ടുള്ള ശുചിത്വമുള്ള സ്ഥലങ്ങളിൽ കന്നുകാലികളെ മൃഗങ്ങളെ വളർത്തിയാൽ മാത്രമേ അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതങ്ങൾ ജീവിതം ലഭിക്കുകയുള്ളൂ അവരെ കുളിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള കീടങ്ങളിൽ നിന്നും പുഴുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ വളർത്ത് വളർത്തുടമസ്ഥരുടെയും കടമയാണ്